ആ ജയമേ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നതാണേ ഒരു പത്തു പേരുണ്ടേ അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് ആണേ അവിടെ സൗകര്യമുണ്ടല്ലോ പിന്നെ വെജിറ്റേറിയൻ വേണേ വെജിറ്റേറിയൻ വേണേ അരിയാ ആ ഓക്കെ ആ ആ ആ ആ വെജിറ്റേറിയൻ ആണ് ഞങ്ങളെ ആ അപ്പോൾ മസാല ദോശയും

ഓക്കെ മ്മ് ആ ആ അതാ ആ എന്നാൽ ഒരു അഞ്ചാറു പേർക്ക് ആറു പേർക്ക് മസാല ദോശയും ബാക്കി ഒരു അഞ്ചു പേർക്ക് അപ്പവും കറിയും എടുക്കെ പിന്നെ പിന്നെ എവിടെ ആയിട്ടാ അപ്പോൾ ഈ റെസ്റ്റോറന്റ് ഏ അടുത്താണോ ഇവിടെ

വണ്ടി പാർക്ക് ചെയ്യുന്ന സൗകര്യം ഉണ്ടോ

ഞങ്ങൾ ഒരു ട്രാവലർ ആണേ മരിയ ട്രാവലർ ആ ആ പിന്നെ ബാത്റൂം ഒക്കെ നല്ല ക്ലീൻ ആണല്ലോ പെണ്ണുങ്ങൾ ആ സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടല്ലേ ആ ഓക്കെ ആ എന്നാ ശരി ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് തിരിക്കുവാണേ ആ റെഡിയാ ആ ആ ഓക്കെ ആ എത്രയാ അതിന്റെ റേറ്റ് എല്ലാം കൂടെ ആ ആണോ ഒത്തിരി ആവില്ലല്ലോ അല്ലേ ഒത്തിരി കൂടുതലൊന്നും ആവത്തില്ലല്ലോ ഇല്ല

ആ ഓക്കെ ആ ആ ശരി